ആ എനിക്ക് ഒരു ഉന്നത പഠനത്തിനായി പുതിയ ഒരു നഗരത്തിലേക്ക് താമസം മാറേണ്ടി വന്നു ആ അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഞാൻ നേരത്തെ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും വേറെ ഒരു വീട്ടിലോട്ട് ആണ് താമസം മാറിയത് അപ്പം എൻ്റെ ഒരു ഒരു എൻ്റെ വിലാസമൊക്കെ മാറേണ്ടി വന്നു അപ്പം അതിപ്പം എനിക്ക് ഇവിടെ ഒരു ഗ്യാസിൻ്റെ ഗ്യാസ് ഏജൻസിയിൽ പോയി പുതിയ ഒരു അഡ്രസ്സെക്കെ എനിക്ക് മാറ്റണം അപ്പം അതിന് കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പം ഈ വിളിച്ചു അഡ്രസ്സ് മാറ്റുന്നത് അപ്പം പഴയ അഡ്രസ്സിൽ നിന്നും പുതിയ ഒരു വില അഡ്രസ്സിലേക്ക് മാറ്റുമ്പോൾ എനിക്ക് ഗ്യാസ് കിട്ടേണ്ടതുണ്ട് എനിക്ക് വീട്ടിൽ തന്നെ ഡെലിവറി കിട്ടണം ഡെലിവറി കിട്ടിയാലെ എനിക്ക് ഓരോ ദിവസത്തിനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളു അപ്പം എൻ്റെ പഴയ നേരത്തെ ഇരുന്ന വീട് പത്തനംതിട്ടയായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന് ഇപ്പം പുതിയ ഒരു തിരുവല്ല എന്ന് പറയുന്ന സലത്തേക്കാണ് എനിക്ക് ഞാൻ ഇപ്പം താമസം മാറിയിരിക്കുന്നത് അപ്പം എനിക്ക് താമസം മാറേണ്ടി വന്നു ഉന്നത പഠനത്തിനായിട്ടാണ് ഇനി ഞാൻ ഇങ്ങോട്ട് വന്നത് എനിക്ക് ഇപ്പം ഞാൻ നേരത്തെ ബികോം പഠിച്ചതായിരുന്നു ഞാൻ ഇപ്പോൾ നേരെ ഞാൻ എംകോം പഠിക്കാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് അ താമസം മാറിയത് അപ്പം എനിക്ക് ഗ്യാസ് അയ് ഗ്യാസിൻ്റെ ആവശ്യമുണ്ട് പിന്നെ അത് എനിക്ക് ആ എന്തായിരുന്നു ഓരോ ആഹാരങ്ങൾ വച്ച് കഴിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾകൊക്കെ പറ്റത്തുള്ളു അപ്പം ഞാൻ ഇപ്പം പഠിക്കാൻ പഠിക്കുന്നതിന് ആവിശ്യത്തിനാണ് വീട് മാറിയത് വീട് മാറിയത് കൊണ്ട് എനിക്ക് എന്താണ് ഗ്യാസും മാറേണ്ടി വന്നു അപ്പം എൻ്റെ പഴയ അഡ്രസ്സ് എന്ന് വച്ച് കഴിഞ്ഞാൽ പൈറ്റ്കാലായിൽ വീട് പത്തനംതിട്ട എന്നായിരുന്നു അന്ന് പുതിയ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ കുരിശുമൂട്ടിൽ വീട് തിരുവല്ല എന്നൊരു വിലാസത്തിലേക്കാണ് ഞാൻ എൻ്റെ ഒരു താമസം മാറിയത് അപ്പം ഗ്യാസ് വേണം എനിക്ക് രണ്ട് കുറ്റി ഗ്യാസാണ് എനിക്ക് വേണ്ടത് അപ്പം അതിലുള്ള അഡ്രസ്സ് ആണ് എനിക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞത് അപ്പം ഈ രീതിയിൽ എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ഇത് ഈ രീതിയിൽ ഞാൻ കോൺടാക്റ്റ് ചെയ്തോളാം

അപ്പം അതിന് വേണ്ടി എനിക്ക് ഗ്യാസ് ബുക്ക് ചെയ്യണം എനിക്ക് ഗ്യാസ് ബുക്ക് ചെയ്താലെ ആഹാരം ഉണ്ടാക്കാനും വയ്ക്കാനോ കഴിക്കാനോ പിന്നെ കൃത്യ സമയത്ത് കോളേജിൽ പോകുവാനോ ഒക്കെ സാധിക്കത്തുള്ളു അപ്പം അതിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു നമ്പർലേക്ക് ഞാൻ വിളിക്കുന്നത് എനിക്ക് ഈ ഈ രീതിയിൽ അഡ്രസ് എൻ്റെ ഈ വിലാസം മാറ്റണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നതും അപ്പം എന്തെങ്കിലും തരത്തിൽ പെട്ടെന്ന് ചെയ്യണമെങ്കിൽ എനിക്ക് പെട്ടെന്ന് അത്രയും നല്ലതായിരുന്നു കാരണം എനിക്ക് ഇതിന് വേണ്ടി ഒത്തിരിയും നടക്കാൻ പറ്റത്തില്ല എനിക്ക് കോളേജിൽ ഒത്തിരി പഠിക്കാനും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ എനിക്ക് ഗ്യാസ് ബുക്കിങ് ചെയ്തിട്ട് ഗ്യാസ് കിട്ടി ആഹാരവും കാര്യങ്ങളുമൊക്കെ വച്ച് പെട്ടെന്ന് തന്നെ കോളേജിൽ പോവേണ്ട അത്യാവശ്യം ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കിട്ടണമെന്നാണ് എൻ്റെ ഒരു ആവശ്യം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളോ ഇതിന് വേണ്ടിയുണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്നെ തിരിച്ച് വിളിച്ചാൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർക്കുകയും അതിനനുസരിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തീർക്കുകയും ചെയ്യും എൻ്റെ പഴയ വിലാസത്തിൽ നിന്നും പുതിയ വിലാസത്തിൽ പെട്ടന്ന് തന്നെ നിങ്ങൾ ഗ്യാസ് ബുക്ക് ഗ്യാസ് എത്തിച്ച് തരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതിന് വേണ്ടി നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യണം കാരണം ഇനി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കോളേജിൽ ഒത്തിരി പ്രോജെക്റ്റും കാര്യങ്ങളും പഠിക്കാനും എക്സാമും കാര്യങ്ങളൊക്കെയുണ്ട് അത് തന്നെ ഗ്യാസ് ബുക്ക് ആ വിലാസം മാറി പുതിയ ഒരു ഗ്യാസിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ച് എത്തിച്ച് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു